അതെ അതെ എന്താണ് വേണ്ടത് ഇപ്പോൾ അതേ അല്ലേ ഇപ്പം നമ്മളുടെ അടുത്ത് നിങ്ങൾക്ക് ഏത് ലൊക്കേഷനിലായിട്ടാണ് വേണ്ടത് ഇപ്പോൾ നമ്മുടെ

ആ അപ്പോൾ നമുക്ക് കയ്യിൽ ഇപ്പം അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ ഉണ്ട് മദ്രസ ഏരിയ ആണ് അപ്പോൾ പിന്നെ അടുത്ത പള്ളിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അമ്പലങ്ങൾ അതും ഉണ്ട് പിന്നെ നല്ല എന്നാൽ ഒരു കോളനിയല്ല എന്നാൽ തീരെ ആളില്ലാത്തൊരു പ്രദേശമല്ല അത്യാവശ്യം നല്ല നെയ്ബർസ് ഒക്കെ ഉള്ളൊരു ഏരിയ ആണ് അപ്പോൾ നമുക്ക് അത് ഒന്ന് ആലോചിച്ചാലോ എന്നാൽ അത്യാവശ്യം നല്ല നാച്ചുറൽ സ്പോട്ടും ആണ് മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് നമുക്ക് ഒരു സെന്റിന് ഒരു പതിനൊന്ന് സംതിങ്ങ് ഒക്കെ വരുന്നുണ്ട് അത് എടുത്ത് കൂടെ വില സെന്റിന് നമുക്ക് ഒരു ഒന്നര കൂട്ടിക്കോ കുഴപ്പമില്ല നമുക്ക് ഇപ്പോൾ ഒരു അത് ഡീല് കിട്ടിയാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ഓക്കെ ഓക്കെ

ഓക്കെ താങ്ക്യൂ താങ്ക്യൂ